നമസ്ക്കാരം മൈ കാർ ഏജൻസി അല്ലേ ആ ഓക്കേ ഞാൻ എൻ്റെ പേര് വർഷ എന്നാണ് ഞാൻ ഏകദേശം ഒരാഴ്ച മുന്നേ ഞാൻ നിങ്ങളുടെ ഏജൻസിയിൽ വിളിച്ചിട്ട് ഒരു കാർ ബുക്ക് ചെയ്തിരുന്നു ഒരു വെള്ള ഇന്നോവ കാർ ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഞാനിപ്പം എനിക്ക് അടുത്ത് നാളെ ഒരു ട്രിപ്പ് പോകാനുണ്ടായിരുന്നു അപ്പം എനിക്ക് അതേ കാർ തന്നെ വേണം എന്ന് പറയാനും പിന്നെ നാളത്തേക്ക് ആ കാർ ലഭ്യമാകുമോ എന്ന് ചോദിക്കാനും കൂടിയായിരുന്നു ഇപ്പം വിളിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു യാത്രയായിരുന്നു ആ കാർ ആ കാറിൽ പ്രത്യേകിച്ച് ആ കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ കാറിൽ യാത്ര ചെയ്യാൻ എന്താണെന്നറിയില്ല ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഭയങ്കര രസത്തിൽ ആ കാറിൽ ഇരിക്കാൻ പറ്റുമായിരുന്നു ആ കാറിൻ്റെ സീറ്റിങ്ങ് ആയാലും ആ ഒരു മൊത്തത്തിൽ ഭയങ്കര രസമായിരുന്നു ആ കാറിൽ ഇരുന്ന് പോവാൻ പിന്നെ രണ്ടാമത്തെ കാര്യം പറയുക വെച്ചാൽ എന്തായാലും ഡ്രൈവറിനെ തന്നെ പറയും ഞാൻ കാരണം ഡ്രൈവർ എന്ത് ഒരു ഒരു ഡ്രൈവർ ആയാൽ ഇങ്ങനെ വേണം കാരണം എന്താണ് പറയുക ആൾ ഒരു തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടോ ഒന്നും വരുത്താതെയാണ് ആ ഒരു മൊത്തം യാത്ര കൊണ്ടുപോയത് തന്നെ പിന്നെ ആളുടെ എന്താണ് പറയുക സംസാര രീതിയാണെങ്കിലും നല്ലൊരു നല്ലൊരു മനുഷ്യനായിരുന്നു അപ്പം ആ ഒരു മൊത്തത്തിൽ ഒരു യാത്ര മൊത്തം എനിക്കൊരു സ്പെഷ്യൽ ആവാൻ കാരണം ഒരു കാർ കിട്ടിയതിൻ്റെ പേരിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എനിക്കാച്ചാ ഇപ്പം നാളെ ഒരു സ്ഥലത്തേക്ക് പോവണമായിരുന്നു അതെന്ന് പറയുമ്പോൾ കുറച്ചധികം ദൂരമുണ്ട് കുറച്ചധികം ദൂരമുണ്ട് അങ്ങോട്ട് പോകാൻ അപ്പം എനിക്ക് എന്തായാലും ആ കാർ തന്നെ വേണമെന്ന് അത് എനിക്ക് എന്തായാലും നാളേക്ക് ആ കാർ ഒന്ന് വിട്ടുതരണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിപ്പം വിളിച്ചിരുന്നത് ഞാൻ കാശൊന്നും കുഴപ്പമില്ല എത്ര വേണമെങ്കിലും ചെയ്യാം പക്ഷേ ആ കാറിൽ തന്നെ എനിക്കൊന്ന് ബുക്ക് ചെയ്ത് തരണം വെള്ള ഇന്നോവ പറ്റുവാണെങ്കിൽ ആ ഡ്രൈവറിനെ എനിക്ക് ആ ഡ്രൈവറിനെ തന്നെ വേണമെന്നുണ്ട് കാരണം ഭയങ്കര കംഫ കംഫർട്ട് ആയിരുന്നു ത്രൂഔട്ട് അപ്പം എനിക്ക് ആ ഒരു കാർ തന്നെ കിട്ടിയിരുന്നെങ്കിൽ ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ ഓക്കേ ഓക്കേ താങ്ക് യൂ താങ്ക് യൂ സോ മച്ച്